ആ ഹലോ റോണി എന്ന് പറഞ്ഞ ആളാണോ ഞാന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കാറിൽ ആയിരുന്നല്ലോ വന്നത് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോയത് അപ്പം എനിക്ക് ഒരു പ്രാവശ്യം കൂടെ പോകണമായിരുന്നു അടുത്ത ആഴ്ച അപ്പോൾ എനിക്ക് താങ്കൾക്കൊന്ന് വരാന് സാധിക്കുമോ ആ ഓക്കേ അതെന്താണ് എന്നറിയാമോ നിങ്ങൾ വളരെ ഡീസന്റായിട്ടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ യാത്രയാണെങ്കിലും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നതു ഡ്രൈവിങ്ങൊക്കെ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അത് നിങ്ങളുടെ കൂടെയുള്ള യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു ആവിശ്യമുള്ള സമയത്ത് റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കണമെങ്കിലോ വൊമിറ്റിംഗ് സെന്സേഷൻ ഉള്ളപ്പോഴൊക്കെ നിങ്ങൾ വണ്ടി നിര്ത്തുകയും ഞങ്ങളെ അതുപോലെ എന്ജോയ് ചെയ്യിപ്പിക്കുകയുമൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ സാവധാനം എന്നാല് സൂക്ഷിച്ചും അത്യാവിശ്യം സ്പീഡുമുണ്ടായിരുന്നു വണ്ടിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളെ ഇവിടെ എത്തിച്ചു അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ അതിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട് വേറൊരു വണ്ടി വിളിക്കുന്നതിലും നല്ലത് നിങ്ങളെ പരിചയവുമായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വണ്ടി തന്നെ പോകണം എന്നാണ് ആഗ്രഹം വേറെ എന്തെങ്കിലും ബുക്കിംഗ് ഉണ്ടോ അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത ആഴ്ച ചൊവ്വാഴ്ചത്തേക്ക് എന്തെങ്കിലും ബുക്കിംഗുണ്ടോ ഇല്ലെ എന്നുണ്ടെങ്കിൽ പറയണേ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വണ്ടി വിളിക്കാം അല്ലാതെ ഇപ്പം നിവര്ത്തി ഇല്ലല്ലോ ഇല്ല എന്നുണ്ടെങ്കില് പറയുകയും ഞങ്ങൾക്ക് ആ വണ്ടിയിൽ വരനായിരുന്നു ആദ്യം ആവിശ്യം പിന്നെ അത് കാരണം യാത്ര ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു അതുകൊണ്ടാണ് ഓക്കേ വരുമോ ഓക്കേ ഓക്കേ എങ്കിൽ നമുക്ക് അന്ന് കാണാം താങ്ക് യു